ട്രെയിനിനെക്കുറിച്ച് പറയുമ്പോഴേക്കും പരശുറാം എക്സ്പ്രസിനെ എക്സ്പ്രസിനെക്കുറിച്ചാണ് പറയാനായിട്ടുള്ളത് അത് ഞാൻ അത് മംഗലാപുരത്തേക്ക് ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനാണ് രാവിലെ കൊല്ലത്തുന്ന് ഒമ്പതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് ട്രെയിൻ പൊതുവെ ഒരു ലാഗായിട്ടാണ് പോകുന്നത് എല്ലാ സ്റ്റോപ്പിലും നിർത്തി നിർത്തി ഉള്ള ഒരു യാത്രയാണ് പക്ഷേ രാവിലെ പോകുന്നത് കൊണ്ട് ഇരിക്കാനൊക്കെ ലോക്കലിലാണെങ്കിലും സീറ്റൊക്കെ ഉണ്ടാകും അങ്ങനൊരു ഗുണമുണ്ട് അതുകൊണ്ട് അതാണ് മെയിനായിട്ട് അതിൽതന്നെ പോവാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് പിന്നേ അവിടത്തെ ഫുഡ് ട്രെയിനിലെ ഫുഡൊക്കെ കുഴപ്പമില്ലയെന്നെ പറയാൻ പറ്റുളളൂ വലിയ മെച്ചമൊന്നുമില്ല നമ്മളെപ്പോഴും അത് വീട്ടിൽനിന്ന് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അതെപ്പോഴും നമുക്ക് നല്ലത് പിന്നെ ട്രെയിൻ ചില ദിവസങ്ങളില് ടൈമിങ്ങ് നല്ലപോലെ ലാഗ് ആവലുണ്ട് ചില ചില ദിവസങ്ങളിൽ ട്രെയിൻ കുറേ സമയം തന്നെ പിടിച്ച് നിർത്തലുണ്ട് ഓരോ സ്റ്റേഷനിലൊക്കെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിലുണ്ട്